ഞങ്ങളുടെ പ്രദേശത്തുള്ള ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളെ വളരെ മികച്ച രീതിയിൽ തന്നെ കായികമേഖല സഹായിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ അവർക്കു വേണ്ടിയിട്ടുള്ള കായിക ഉപകരണങ്ങളും എല്ലാത്തരത്തിലുള്ള സൗകര്യങ്ങളും നൽകുന്നുണ്ട് അവർക്കുവേണ്ടി പ്രത്യേക തരത്തിലുള്ള മത്സരം എല്ലാം നടത്താറുണ്ട് അവരെ മുന്നോട്ടുകൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള പ്രത്യേകം പരിശീലനം കൊടുക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തുകൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ അവർക്ക് വേണ്ട സബ്സിഡികളും കായിക ഉപകരണങ്ങളും എല്ലാം സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അവരെ മുന്നോട്ടു കൊണ്ടു വരാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്